ഇപ്പോൾ സ്റ്റാമ്പുകൾ അല്ലെങ്കിൽ നാണയങ്ങൾ ഇല്ലെങ്കിൽ പഴയതരം കല്ലുകൾ അതായതൊക്കെ നമ്മളത് ഇതൊക്കെ സ്വീകരിക്കുന്ന നമ്മളിപ്പം എന്തിനാണ് ഇതൊക്കെ എടുത്ത് വയ്ക്കുന്നതെന്നു വച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലുള്ളൊരു പഠനം കാഴ്ചവയ്ക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് നമുക്ക് കാരണം എന്താണെന്നു വച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പി എ സിക്കാണെങ്കിലും പിന്നെ നമ്മളോട് എന്തെങ്കിലും ഒരു പ്രോഗ്രാമിന് ഓരോ ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെയുണ്ടാവും ഇപ്പോൾ റിയാലിറ്റി ഷോസിന്റെ ഒരു ഘട്ടമാണ് അപ്പോൾ നമ്മളതിനകത്ത് കോടീശ്വരൻ അങ്ങനത്തെ പല രീതിയിലുള്ള പരിപാടികൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ നല്ല രീതിയിലുള്ളൊരു ജനറൽ നോളേജൊക്കെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടും പിന്നെ നമുക്കിങ്ങനത്തെ ഒരു പാഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഒരു തലമുറയും ഇത് കണ്ടു പഠിക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്കു വേണ്ടി ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് അപ്പം ഒരു വിദ്യാഭ്യാസം മാത്രമായിട്ടല്ല നമ്മൾക്ക് ഇതൊക്കെ എടുത്തു വയ്ക്കുന്നതെന്നു പറഞ്ഞ് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ളൊരു കഴിവ് കാഴ്ചവയ്ക്കാൻ വേണ്ടിയിട്ടും കൂടി സാധിക്കുന്നതാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് കൂടുതലായിട്ടും ആൾക്കാർ ആൾക്കാരും പിന്നെ ഞാനടക്കമുള്ള ആൾക്കാരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റാമ്പുകളും നാണയങ്ങളൊക്കെ ശേഖരിക്കുന്നത് അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ നമ്മൾക്ക് പ്രമോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കാരണം എന്താണെന്നു വച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കോടീശ്വരൻ ഒരു പരിപാടിയിൽ നമ്മൾക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കും ഇപ്പോൾ ആയിരത്തിന്റെ നോട്ടും കാര്യങ്ങളൊക്കെ നിരോധിച്ചിട്ടുണ്ട് അപ്പോൾ ആയിരത്തിന്റെ നോട്ടും കാര്യങ്ങളൊക്കെ നിരോധിച്ചത് എന്തിനാണെന്നു വച്ച് കഴിഞ്ഞാൽ അവർ എന്താ പറയുക ഇപ്പോൾ കള്ളനോട്ട് അടിയൊക്കെ കൂടുതലായിട്ട് ഉള്ളതുകൊണ്ടൊക്കെയാണ് കൂടുതലായിട്ടും അങ്ങനെ അതിനെയൊക്കെ നിരോധിച്ചത് അപ്പോൾ അത് നല്ല രീതിയിൽ ഏത് ഡേറ്റിന് ആണെന്നൊക്കെ ചോദിച്ചിട്ട് ഇപ്പോൾ ആ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ആ നോട്ടൊക്കെ എടുത്തു വച്ചിട്ടുണ്ട് ചിലപ്പോൾ ഈ എന്താ പറയുക ഇപ്പോൾ ജനിക്കുന്ന കുട്ടികൾക്കൊന്നും ഈ ആയിരത്തിന്റെ നോട്ട് കണ്ടിട്ട് പോലുമുണ്ടാവില്ല അപ്പോൾ നമ്മളതൊക്കെ അവർക്ക് കാണിച്ചു കൊടുക്കാനുള്ളൊരു അവസരം കൂടിയാണ് കൊടുക്കുന്നത്